നമ്മൾക്ക് നമ്മളുടെ വീടുകളിൽ കൃഷി ചെയ്താൽ നമ്മൾക്ക് അതിന് മാനം ഒന്നുമില്ല നമ്മൾ ഇവിടെനിന്ന് നമ്മൾ കാച്ചിൽ ചേമ്പ് ചേന ചീനി ഇതെല്ലം നമ്മൾ പുറത്തോട്ട് കൊടുക്കുമ്പോൾ അതിന് വിലയില്ല ആ സമയത്തെ നമ്മൾ എന്തോ നട്ടാലും ഇഞ്ചി മഞ്ഞൾ ചേമ്പ് കാച്ചിൽ ഒക്കെ ഇതെല്ലാ സാധങ്ങളും നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിന് വിലയില്ല നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര വിലയാണ് ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനത്തിനാണെങ്കിൽ ഭയങ്കര വില നമ്മൾ മേടിക്കുമ്പോൾ വിഷം ചേർന്ന സാധനങ്ങളാണ് വരുന്നത് നമ്മൾ നമ്മുടെ വീടുകളിലെല്ലാം കിഴങ്ങ് ചേന എല്ലാ കാര്യങ്ങളും നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് വില കിട്ടത്തില്ല ഒരിക്കലും വില കിട്ടത്തില്ല ആ സമയത്ത് പച്ചക്കറിക്ക് പച്ചക്കറിക്ക് ഒരു ചേമ്പോ പിന്ന കാച്ചിലോ ഇതെല്ലം നമ്മൾ അവിടെനിന്ന് കൊണ്ടുവരും നമ്മുടെ വീട്ടുകളിൽ ഒരു ദിവസം പോലും വെക്കാൻ ഒക്കത്തില്ല അത് വെള്ളമായിട്ടും അഴുകിയും അന്നേരം അളിഞ്ഞ് പോകുവുകയാണ് ആ സമയത്ത് നമ്മുടെ വീട്ടുകളിൽ വെയ്ക്കുന്ന സാധനം ഒരു വർഷം വരെ നമ്മുടെ വീട്ടുകളിൽ നമ്മൾ വെച്ചേക്കും ആ സാധനം നമ്മളടുത്ത വർഷവും നമ്മൾ നടാനുള്ള സാധനങ്ങൾ മാറ്റി വെയ്ക്കും എന്നാലും അത് കേടാവത്തില്ല അതുപോലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കരിയിലകളോ ചാണകപ്പൊടിയും നല്ല സാധനങ്ങളാണ് നമ്മൾ അതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാരം ചാണകം എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാധനത്തിനൊന്നും നമ്മൾക്ക് നല്ല വിലയും കി വില കിട്ടത്തില്ല നമ്മളതുകൊണ്ട് നമ്മുടെ വീട്ടുകളിൽ അത് നമ്മളും നല്ലതുപോലെ ഉപയോഗിക്കുന്നു ആ സമയത്ത് വീടുകളിൽ നിന്ന് വരുന്ന പച്ചക്കറി ആയാലും ചേമ്പായാലും കാച്ചിലായാലും കരിയാപ്പില പോലും എല്ലാം വിഷം ചേർന്നതാണ് കൊണ്ട് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് അത്രയും കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്കത് അത് അതിന് ഭയങ്കര വില കിട്ടും ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വിലയില്ല അതുകൊണ്ട് അതിനാൽ ആണ് ഇഷ്ടംപോലെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ മൺവെട്ടിക്ക് നമ്മൾ തന്നെത്താനെ തടം എടുത്ത് ഓ വെള്ളം കോരി വെള്ളം ഇഷ്ടംപോലെ നമ്മൾ വെള്ളം അന്ന് പൈപ്പും ഒന്നുമില്ല നമ്മൾ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരി കൊണ്ടു ചെന്ന് ഈ സാധനത്തിനെ ഒക്കെ ഒഴിപ്പിച്ച് അത് ഒഴിച്ച് കിളിപ്പിച്ച് കൊണ്ട് വരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ചിലപ്പോൾ കാണത്തില്ല എല്ലാ വീട്ടുകളിലും കിണറാ അന്നു പൈപ്പുകളൊന്നു ഇല്ല ഇഷ്ടംപോലെ വെള്ളം കോരി ചുമന്ന് കൊണ്ടുവരുന്ന സമയങ്ങളാണ് അന്നേരം ഒക്കെ അന്ന് നമുക്ക് ഇഷ്ടംപോലെ കൃഷി ചെയ്ത് കൃഷി കിട്ടുകയും ചെയ്യും നട്ടു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ പിടിച്ച് ചീനി കാച്ചിലായാലും എല്ലാ സാധനങ്ങളും നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പറിച്ച് കൂട്ടി നമ്മൾ നമ്മുടെ വീടുകളിൽ ഇടും അന്നൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ആണ് നമ്മുടെ വീടുകളിൽ ഇത് എടുക്കുന്നത് അതുപോലെ ഇപ്പോൾ പറ്റത്തില്ല ഇപ്പം നമ്മുടെ നാട്ടിലായാലും നമ്മൾ കൃഷി ചെയ്ത് നമ്മളെക്കൊണ്ട് ഒക്കുന്നത് കൃഷി ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ചാക്കിനകത്തായാലും എന്തോത്തിനായാലും ചട്ടിയിലായാലും നമുക്കുള്ള കൃഷികൾ നമ്മളിഷ്ടംപോലെ ആക്കി എടുത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് അതെല്ലാം ഉപയോഗിക്കുന്നു ഇന്ന് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ എത്ര ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഇത് ഉണ്ടാവുന്നുണ്ട്